മത്സ്യങ്ങൾ പൊതുവായി ആളുകൾ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ പ്രത്യേകതയാർന്ന രുചികൊണ്ടാണ് അയല മത്തി കരിമീൻ അങ്ങനെ വരുന്ന ഒരുപാട് മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൽ

ഞാൻ പൊതുവായി മത്തിയാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു മത്സ്യം എന്ന് പറയുന്നത് മത്തിയുടെ കാൽസ്യത്തിൻ്റെ അളവുകളും കൂടുതൽ കാൽസ്യത്തിൻ്റെ അളവ് ഉള്ളത് കൊണ്ട് തന്നെ മത്തിയൊരു നല്ല മത്സ്യം മത്തി കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആളുകൾ തീർച്ചയായും കഴിക്കാൻ ഇഷ്ടപെടുന്ന മത്സ്യങ്ങളിൽ മത്തി ഒരു വൻ സ്വാധീനം തന്നെ ചെലുത്തുന്നുണ്ട് അയല ചെമ്മീൻ പോലെയുള്ള ബാക്കിയുടെ ഇവിടുത്ത അങ്ങനെ പേര് അറിയത്തില്ല ഇങ്ങനെയുള്ള മത്സ്യങ്ങളാണ് ആളുകൾ തീർച്ചയായും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ മത്തിയാണ് കഴിക്കാറ്